ഭാഷാ പരമായിട്ടുള്ള പ്രശ്നം കൂടുതലായിട്ട് ഞാനഭിമുഖീകരിച്ചത് കഴിഞ്ഞപ്രാവശ്യം ഒരു ഇന്ത്യാ പര്യടനം നടത്തിയ സമയത്തായിരുന്നു നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ ഈ ഉള്ള എല്ലാ സംസ്ഥാനത്തും ഭാഷകൾ വ്യത്യസ്തമാണ് അതിനു കാരണം ഇന്ത്യയിൽ കൂടുതൽ സംസ്ഥാനങ്ങളും രൂപം കൊണ്ടിരിക്കുന്നത് ഭാഷയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കേരളത്തിൽ നിന്നും തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിലേക്കു പോയാൽ അത്തരത്തിലുള്ള അധികം ബുദ്ധിമുട്ട് നമുക്ക് അനുഭവിക്കേണ്ടിവരില്ല കാരണം തമിഴ് നമ്മുടേ ജീവിതത്തിൽ മിക്കദിവസങ്ങളും തമിഴ് നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അതു കഴിഞ്ഞ് തൊട്ടടുത്ത കർണാടകത്തിലേക്ക് മാറിയാൽ ഭാഷ മാറി കന്നട ആയി ഒരു ഇന്ത്യാ രാജ്യം മുഴുവനായിട്ട് ഒന്നു ചുറ്റിക്കറങ്ങി വരണമെന്ന് ഉദ്ദേശിക്കുന്നൊരാൾക്ക് അഭിമുഖീകരിക്കുന്ന പ്രധാനമായൊരു പ്രശ്നമാണ് ഭാഷയുടെ അറിയാത്ത പ്രശ്നങ്ങളുത് ഈ അവസരങ്ങളിലെല്ലാം നമുക്ക് ഉപയോഗിക്കാവുന്ന കൂടുതലായിട്ടും ആംഗ്യ ഭാഷയിലൂടെ നമുക്ക് അവരെ കാര്യയങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻവേണ്ടി കഴിയാറുണ്ട് നമ്മളിപ്പോൾ ഒരു സ്ഥലത്തു പോയി നിർത്തി അടുത്ത ഒരു സ്ഥലം എവിടെയാണ് എന്നൊരു അവിടുത്തെ ലോക്കൽ ഭാഷയിലവരോട് ചോദിച്ചു മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല നമുക്ക് നമ്മുടെ ഭാഷയെ അറിയുള്ളു നമ്മൾ ചോദിക്കുന്ന ആളുകൾക്ക് അവരു സംസാരിക്കുന്ന ഭാഷയെ അറിയുള്ളു ആ അവസരത്തിൽ നമുക്ക് ആംഗ്യ ഭാഷ കൂടുതലായിട്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ടു പോകാം പിന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഏത് പ്രദേശത്തു ചെന്നാലും നമുക്ക് മലയാളികളെ കാണാൻ വേണ്ടി സാധിക്കും അത് വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് യാത്രകൾ പോകുമ്പോൾ ഒരു പത്തു കിലോ മീറ്ററിൻറ്റുളളിൽ ചെന്നാൽ ഒരു മലയാളിയെ കാണാൻ സാധിക്കുമെന്നുള്ളതുറപ്പായിട്ടുള്ള കാര്യമാണ് അപ്പോൾ യാത്രക്കിടയിൽ നമുക്കു കൂടുതൽ ബുദ്ധിമുട്ടൊഴുവാക്കാൻവേണ്ടി സാധിക്കും ഈ മലയാളികൾ എല്ലാ പ്രദേശത്തും ഉള്ളതുകൊണ്ട് അവരോടു നമുക്ക് നമ്മുടെ മാതൃഭാഷയിൽത്തന്നെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മളുടെ യാത്രയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്നതാണ്